ഹലോ ആ ഇത് ഗൈഡ് അല്ലേ ആ എനിക്ക് ഇപ്പോൾ കേരളത്തിൽ അത്യാവശ്യം നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഏതാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ നമ്മള ബ്രദറിന് ചെറിയൊരു ഹാർട്ടിന് ചെറിയൊരു പ്രശ്നം ആ ഓക്കെ നമുക്ക് ഈ ഹാർട്ടിന് ഒക്കെ ആയതുകൊണ്ട് അധികം ചാൻസ് എടുക്കാൻ പറ്റില്ല അത്യാവശ്യം നല്ല ഡോക്ടേഴ്സ് എവിടെയാണോ ഉള്ളത് അത് ചൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ആണേ പേയ്മെൻറ്റും കാര്യങ്ങളും നമുക്ക് ഒരു പ്രശ്നമേ അല്ല എത്ര ക്യാഷ് ആണെങ്കിലും നമുക്ക് സീൻ ഇല്ല ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് ആയിരുന്നേ

ഓക്കെ അവിടുത്തെ ഡോക്ടേഴ്സും നല്ല ഡോക്ടേഴ്സ് തന്നെ ആയിരിക്കും അല്ലേ

ഇപ്പം നമ്മൾ ഈ ഹാർട്ടിൻ്റെ കാര്യമൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ കൂടുതൽ റഫർ ചെയ്യുന്നത് എവിടേക്ക് ആയിരിക്കും മിംമ്സ് ആയിരിക്കും അല്ലേ

ഓക്കെ ഓക്കെ ഓക്കെ

ഓക്കെ അപ്പം നമ്മൾ എന്തായാലും നിങ്ങൾ തന്നൊരു ഇത് വെച്ചിട്ട് ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റൽ നോക്കി പോവാമെന്ന് കരുതിയിട്ടാണ് അപ്പം നിങ്ങൾ ചെയ്ത് തന്നത് നല്ലൊരു ഉപകാരമാണ് താങ്ക് യൂ ഞാൻ എന്തായാലും അമൃതയോ മിംമ്സോ ഏതെങ്കിലും നോക്കാം ഓക്കെ എന്നാൽ ഞാൻ മിംമ്സ് തന്നെ ചൂസ് ചെയ്യാം അവിടെ ബുക്കിംഗ് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ചെയ്ത് തരുമായിരിക്കുമല്ലോ അല്ലേ ഓക്കെ എന്നാൽ ഞാൻ ബുക്ക് ചെയ്യേണ്ട ടൈം ആവുമ്പം ഞാൻ നിങ്ങളെ വിളിച്ചോളാം ഓക്കെ താങ്ക് യൂ